ശരിക്കും വായനയിലേക്ക് വന്നെത്തിയത് ശരിക്കും ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കുമ്പോഴത്തേക്കും നമുക്ക് അറിയാവുന്നത് പറഞ്ഞു കൊടുക്കണമെന്നുള്ള ആഗ്രഹം നമ്മുടെ മനസ്സിൽ തോന്നുമ്പോഴാണ് വായന നമ്മൾ വായിക്കേണ്ടതുണ്ട് വായിച്ച് കാര്യങ്ങൾ നമ്മൾ കുറച്ചുകൂടെ അറിവ് നമുക്ക് ഉണ്ടായിരുന്നാലേ നമുക്ക് പറഞ്ഞ് കുട്ടികൾക്കായിരുന്നാലും മുതിർക്ക മുതിർന്നവർക്കായിരുന്നാലും എന്തെങ്കിലും പറഞ്ഞുകൊടുക്കാൻ സാധിക്കയുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കിയാണ് ഈ വായന തുടങ്ങിയത് പുസ്തകങ്ങൾ ഏത് പുസ്തകങ്ങൾ എടുത്ത് വായിച്ചാലും നമുക്ക് എന്തെങ്കിലും അതിൽ നിന്ന് നമുക്ക് കിട്ടുക തന്നെ ചെയ്യും ഒന്നും കിട്ടാതിരിക്കില്ല ഏത് തരം വായനയും നല്ല നല്ലതാണ് എങ്ങനെയുള്ള ഏത് പുസ്തകങ്ങൾ വായിച്ചാലും അതിൽ എന്തെങ്കിലുമൊക്കെ നല്ലതും നമുക്ക് അറിയു അറിഞ്ഞുകൂടാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ അതിനകത്ത് കാണുക തന്നെ ചെയ്യും ഏത് തരത്തിലുള്ള പുസ്തകങ്ങൾ നമ്മൾ സെലക്റ്റ് ചെയ്ത് വായിച്ചാലും അത് നല്ലൊരു സ്വഭാവം തന്നെയാണ് അത് നമ്മൾ നമുക്ക് വായനാ ശീലം ഉണ്ടെങ്കിൽ നമുക്ക് മറ്റുള്ളവർ എന്തെങ്കിലും തെറ്റുകൾ പ ചിന്തിക്കുകയോ പറയുവോ നമ്മൾ കാണക്കെ പെരുമാറുകയോ ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കുട്ടികൾക്കാവട്ടെ അല്ല മറ്റ് ആരെങ്കിലുമാവട്ടെ നമ്മുടെ ചുറ്റുപാടിലും മറ്റുള്ളവരാവട്ടെ എന്തെങ്കിലും തെറ്റിലേക്ക് അവർ ചെയ്യുവോ നമ്മുടെ ശ്രദ്ധയിൽ പെടുകയോ ചെയ്യുവാണെങ്കിൽ നമുക്ക് അത് തിരുത്തി കൊടുക്കണമെങ്കിൽ നമുക്ക് ശരിക്കും വായന ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ വായന ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ശരിയായിട്ടുള്ള അറിവ് നമുക്ക് പറഞ്ഞുകൊടുക്കാൻ കഴിയുള്ളൂ പുസ്തകങ്ങൾ ഏത് തരം പുസ്തകങ്ങൾ വായിച്ച് കഴിഞ്ഞാലും അതിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കാണും ഭാവിയിൽ നമ്മൾ പിന്നെ ഇതിനെ ഓർത്ത് വയ്ക്കുക എന്നുള്ളതാണ് നമ്മുടെ ജോലി ശരിക്കും ഈ വായനയിലൂടെ വരുന്ന അറിവുകൾ നമ്മൾ ശരിക്ക് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ ആവശ്യം ഉള്ളപ്പോൾ ഓർക്കുക തന്നെ ചെയ്യും എന്നുള്ളതാണ് മറ്റൊരു കാര്യം വായിച്ച് ഉള്ള അറിവ് നമ്മൾ എപ്പോഴും നമുക്ക് നമ്മുടെ ജീവിതത്തിലും നമുക്ക് ഉപയോഗിക്കാൻ പാകത്തിനുള്ള ഒരു കാര്യം എന്നുള്ള നിലയിൽ വായന ഒരു നല്ലൊരു ശീലമാണ് നമ്മൾ ശരിക്കും ചിലപ്പോൾ വായിക്കുക വായിക്കുമ്പോൾ ശരിക്കും നമ്മൾ ഉറങ്ങിപ്പോവാറുമുണ്ട് ചില ചില സമയങ്ങളിൽ നമ്മൾ ക്ഷീണം നമുക്ക് ക്ഷീണം തോന്നുമ്പോഴത്തേക്ക് നമ്മൾ വായിച്ചുറങ്ങും വായിച്ച് വായിച്ചുറങ്ങുന്നത് പണ്ട് നമ്മൾ പാട്ട് കേട്ട് ഉറങ്ങുന്നത് പോലെ ഉള്ള ഒരു ഒരു ഫീലിങ്ങ് ആണ് മനസ്സിന് തോന്നാറ് അതുകൊണ്ട് തന്നെ വായന എന്ന് പറയുന്നത് നല്ല ഒരു ഇതാണ് ഒരു റിലാക്സേഷൻ നമുക്ക് കിട്ടുന്ന ഒന്ന് ഒന്ന് തന്നെയാണ് വായന എന്ന് പറയുന്നത് അത്തരത്തിൽ നമ്മൾ ഏത് തരം പുസ്തകങ്ങൾ വായിച്ച് വായിച്ചാലും നമ്മൾ മറ്റു ള്ള ഭാഷകളിലെ പുസ്തകങ്ങൾ വായിച്ചാലും നമുക്ക് വായിച്ചുകഴിഞ്ഞാൽ നമുക്ക് ഡിക്ഷ്ണറിയുടെയും മറ്റെന്തെങ്കിലും സഹായത്തോടു കൂടി നമുക്ക് അർത്ഥം മനസ്സിലാക്കി നമുക്ക് വായിക്കാൻ സാധിക്കും ക് കുഞ്ഞുണ്ണി മാഷിൻറെ കവിതകൾ വായിക്കുമ്പോഴത്തേക്കും നമുക്ക് ചെറിയ ചെറിയ കവിതകളാണെങ്കിലും നമുക്ക് അതിൽ വിജ്ഞാനമുണ്ട് അതിൽ ശരിക്ക് നമുക്ക് ശ് ചിന്തിക്കാനുണ്ട് കൊച്ചുകൊച്ചു വിഷയങ്ങളെ കുറിച്ചാണെങ്കിലും ചെറിയ ചെറിയ കവിതകളാണെങ്കിലും നമുക്ക് ധാരാളമായിട്ട് നമുക്ക് അത് ചിന്തി നമ്മൾ വീണ്ടും വീണ്ടും ചിന്തിക്കുന്നതാണ് നമ്മൾ ചെറിയ ചെറിയ കവിതകളാണെങ്കിലും നമുക്ക് വീണ്ടും വീണ്ടും വായിക്കാനും വായിക്കാൻ വായിക്കാൻ നമുക്ക് വീണ്ടും വീണ്ടും ചിരിയും നമുക്ക് രസവും തോന്നുന്ന രീതീലാണ് ഈ ച് ചെറിയ ചെറിയ കവിതകളാണെങ്കിലും നമുക്ക് നമുക്ക് അനുഭവം അനുഭവിക്കാൻ കഴിയുന്നത് ഏത് തരത്തിലുള്ള കവിതകളുമായി കവിതകളാണെങ്കിലും നമുക്ക് വായിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഒരു പ്രത്യേക ഒരു ഒന്നിലേക്ക് നമ്മളെ അത് കൊണ്ടുപോയി അവിടുത്തെ കുറേ സിറ്റുവേഷനുകൾ നമുക്ക് പരിചയപ്പെടുത്തി തന്ന് അങ്ങനെ ഒരു ശരിക്കും എസ് കെ പൊറ്റക്കാടിൻറെ പാതിരാസൂര്യൻറെ നാട്ടിലെന്ന പുസ്തകം വായിച്ചപ്പോഴത്തേക്കും നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരു രാജ്യത്തിൽ നമ്മൾ പോയി ഇറങ്ങിയതുപോലത്തെ ഒരു പ്രതീതിയാണ് നമുക്ക് അനുഭവത്തിൽ നമുക്ക് തോന്നുന്നത് അപ്പം അത്തരത്തിലൊള്ള പല പുസ്തകങ്ങളും അങ്ങനെത്തന്നെ നമുക്ക് ഒരു ഒന്ന് ഓരോന്നും നമുക്ക് തക തകഴിയുടെ കയറാവട്ടെ ഇത്തരത്തിൽ ഈയുള്ള പുസ്തകങ്ങളൊക്കെ നമുക്ക് ശരിക്കും ഓരോരോ അനുഭവങ്ങളാണ് നമുക്ക് കാട്ടിത്തരുന്നത് അപ്പം വായന എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നല്ല ഒരു ശീലമാണ് ഇന്ന് അന്യം നിന്ന് പോകുന്നൊരു ഒരു ഇത് ശീലം കൂടെയാണെന്നതാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് കാരണം കൊച്ചു കുറേ അധികം ഇന്നത്തെ പുതിയ തലമുറയൊക്കെ ഒരുപാട് സമയം കമ്പ്യൂട്ടറിലും മൊബൈലുകളിലും ചിലവഴിക്കുമ്പം നമുക്ക് ശരി തന്നെ നമുക്ക് അവരോട് പറഞ്ഞാലും അവർക്കത് അതിൽ നിന്നൊരു വിടുതലില്ലാത്ത രീതിയിൽ തന്നെയാണവർ വീണ്ടും വീണ്ടും ഇത് തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയായിട്ടാണ് കാണുന്നത് വായന അവർക്ക് കുറവാണ് അപ്പം വായന എന്നുള്ളത് ശരിക്കും വായന അറിവ് നമ്മൾ കൂടുന്നതോട് കൂടുന്നതോടൊപ്പം നമുക്ക് ആരോഗ്യകരമായി നമ്മുടെ ബ്രയിനിൻറെ ആരോഗ്യകരമായൊരു വളർച്ചയും കൂടെയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പല പല പ്രായത്തിലും നമുക്ക് വായിക്കാൻ കഴിയുന്നു ചെറിയ പ്രായത്തിൽ നമ്മൾ വായിച്ചത് തന്നെ അത് കഴിഞ്ഞ് കൗമാര പ്രായത്തിലും നമ്മൾ വായിച്ചത് അതിനേക്കാളും കുറച്ചുകൂടെ വായനയിലും നമുക്ക് കുറച്ചുകൂടെ മെച്യൂരിറ്റി വന്ന് വന്ന് നമുക്ക് വായനയിലും മെച്യൂരിറ്റി ഉണ്ട് വായനയിലും നമ്മൾ വളരുകയാണ് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ നമ്മൾ അറിവിൽ വളരുന്നതോടൊപ്പം വായ വായിച്ച് വളരുക വായിച്ച് വളരുകയാണ് നമ്മൾ ചെയ്യുന്നത് ശരിക്കും അത് വായിച്ചാലേ അത് മനസ്സിലാവുള്ളൂ വായനാശീലം ഉണ്ടെങ്കിലേ അത് നമുക്ക് അനുഭവത്തിൽ നമുക്കത് ബോധ്യപ്പെടും തീർച്ചയായിട്ടും പുതിയ തലമുറയും വായിക്കണം കൂടുതൽ ലൈബ്രികളിൽ ചെന്ന് പുതിയ പുതിയ പുസ്തകങ്ങൾ തിരഞ്ഞെടുത്ത് വായിക്കണം ഏത് തരം പുസ്തകങ്ങൾ വായിച്ചാൽ അത് അറിവ് വർദ്ധിപ്പിക്കുക തന്നെ ചെയ്യും അത്തരത്തില് വായന നല്ലൊരു ശീലമാക്കിയെടുക്കണമെന്നാണ് എൻറെ അഭിപ്രായം മൊബൈലിലും കമ്പ്യൂട്ടറും ഒന്നും വേണ്ടെന്നല്ല അതെല്ലാം തന്നെ ഈ നമ്മുടെ ജീവിതത്തിൻറെ ഓരോരോ ഏത് ഘട്ടത്തിലും നമ്മളെ എളുപ്പമാക്കിത്തീർക്കുന്ന പു പു നൂതനമായിട്ടുള്ള സാധ്യതകളാണതെല്ലാം ആ ആ അർത്ഥത്തിൽ എടുക്കുമ്പോഴത്തേക്കും അതെല്ലാം തന്നെ നമുക്ക് വേണ്ട വേണ്ടതാണ് എന്നാലും നമ്മുടെ വായിക്കാനോ കുറച്ച് നേരം ഒരു അത്യാവശ്യം ഒരു ഒരു മണിക്കൂറെങ്കിലും ഇല്ലെങ്കിൽ തീരെ ഇല്ലെങ്കിൽ അര മണിക്കൂറെങ്കിലും ഒരു ദിവസം വായിക്കാൻ വേണ്ടി ഉപയോഗിച്ച് വായിച്ച് വളരണം എന്നാണ് എൻറെ അഭിപ്രായം